ഞാൻ ട്രയൽ റണ്ണിംഗ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല ഞാനിതുവരെ അതിൻ്റൊരു ആവശ്യം വന്നിട്ടില്ല നമുക്ക് സാധാ ഒരു എക്സർസൈസ് നല്ലൊരു പണി പണിയെടുത്താൽ തന്നെ നല്ലോണം മെലിയാം അങ്ങനെ തടിവെയ്ക്കുമൊന്നും ഇല്ല പിന്നേ വർക്കൌട്ട് ചെയ്യേണ്ട അങ്ങനെ വലിയൊരാവശ്യം വന്നിട്ടില്ല ചെറുതിലൊക്കെ ചെറിയ സ്ക്കൂളുകളിൽ പഠിക്കുമ്പോൾ ഒക്കെ സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു അതു ഒരു പരിധിവരെ നമ്മുടെ ആരോഗ്യത്തെ

നല്ല രീതിയിൽ ആവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്

ഭക്ഷണം കുറയ്ക്കുക അതുവഴി കൂടുതൽ നല്ല എക്സർസൈസ് ചെയ്യുക നമുക്കിങ്ങനെ ഉപകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല രാവിലെ കുറച്ചുനേരം നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾത്തന്നെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും അല്ലാണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ പോവുന്നുണ്ട് എക്സർസൈസ് ആയിട്ട് എക്സർസൈസിന് വേണ്ടീട്ട് ഇങ്ങനത്തെ ജിമ്മിലും വീടുകളിൽത്തന്നെ ആണെങ്കിലും ഇപ്പം എല്ലാ ഒരുവിധം മിക്ക വീടുകളിലും ഇപ്പം ഇങ്ങനത്തെ മെഷീനുകൾ റണ്ണിംഗ് ട്രയൽ റണ്ണിംഗ് പോലുള്ള മെഷീനുകൾ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ ആ ഞാനിതുവരെ അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല സ്പോർട്സിലുണ്ടായിരുന്നു അല്ലാണ്ട് വേറെ അങ്ങനത്തെയൊന്നും ഉപയോഗിച്ചിട്ടില്ല